ആ ഞാന് ഇന്നലെ ഒരു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ നിങ്ങളുടെ റെസ്റ്റോറൻ്റിൽ നിന്ന് തന്നെ ആ അപ്പം അത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഞാന് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ് ഓർഡർ ചെയ്യിപ്പിച്ചത് ആണ് പക്ഷെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് എന്താ പറയുക മസാലകളൊക്കെ തീരെ കുറവായിരുന്നു ആ അതെ അതെ അതെ വിഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ബിരിയാണി ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തത് അപ്പം മസാല അതിനകത്ത് തീരെ ഇല്ല അപ്പം നമ്മളുടെ അതായത് നമ്മള് ഒരു ഫങ്ക്ഷൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫങ്ക്ഷന് വന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയില് ഫുഡ് കഴിച്ചത് പക്ഷെ അവര് മോശം അഭിപ്രായമാണ് പറഞ്ഞത് അപ്പം ആ മോശം അഭിപ്രായം പറഞ്ഞത് കൊണ്ട് നിങ്ങളുടെ റെസ്റ്റോറൻറ്റും കൂടെ ആണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ റേറ്റിങ്ങ് കൂടെ ആണ് കുറഞ്ഞത് അപ്പം അതുകൊണ്ട് എനിക്കൊന്ന് വിളിച്ച് പറയാൻ തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ പിന്നെ അതിനകത്ത് ക്വാണ്ടിറ്റിയും കുറവായിരുന്നു അതായത് ക്വാണ്ടിറ്റി കുറവെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അതിനകത്ത് നമുക്ക് ഇത്ര ആൾക്കാർക്കായിരുന്നു പറഞ്ഞത് പക്ഷെ അത്രയും പോലും തികഞ്ഞിട്ടില്ല സാധനം തികഞ്ഞിട്ടില്ല അപ്പം ക്വാണ്ടിറ്റിയും കുറവ് മസാല കുറവ് എന്തിലൊക്കെയോ പ്രേശ്നങ്ങളൊക്കെ ആയിരുന്നു ഇതിനു ഉണ്ടായിരുന്നത് ബിരിയാണിക്ക് ഉണ്ടായിരുന്നത് അപ്പം അത് നിങ്ങള് ഇനി ആർക്കെങ്കിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കില് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് തന്നെയാണ് കുറയുക ഓക്കെ ഓക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കെട്ടോ